എല്ലാവരും വളരെ സപ്പോർട്ട് തന്നെയാണ് എസ്റ്റി വിഭാഗങ്ങളോടും അവരുടെ അവരോടു വളരെ എന്താ സൗഹൃദപരമായിട്ടു തന്നെയാണ് മുന്നേറുന്നത് അവരെ വേറെ അവഗണിക്കലോ അങ്ങനെ ഒന്നുമില്ല എല്ലാവരും സൗഹൃദപരമായും എല്ലാ പരിപാടികളിലും ഉൾപ്പെടുത്തുകയും അവരോട് അവരോട് ആവശ്യപ്പെട്ട് അവരതിൽ ചേർത്തി അവർക്ക് സപ്പോർട്ട് നൽകുകയും ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത് എല്ലാവരും വളരെ അടിപൊളി ആയിട്ട് തന്നെയാണ് ഈ ഈ വിഭാഗങ്ങളെയും എല്ലാവരെയും കാണുന്നത്